നമസ്കാരം ആ ഞാൻ ആഹാരം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓർഡർ നമ്പർ മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ഇരുപത്തിയഞ്ച് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ അഞ്ചരക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുള്ളത് ഏഴരയ്ക്കാണ് പോരാത്തതിന് ഞാൻ മത്സ്യം കഴിക്കില്ല പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെജ് ബിരിയാണിക്ക് പകരം ചിക്കൻ ബിരിയാണിയാണ്

ഞാൻ ഓർഡർ ചെയ്തത് താജ്മഹൽ ഹോട്ടലിൽ നിന്നാണ് അതെ ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അതല്ല ലഭിച്ചിട്ടുള്ളത് അതെ അത് പോരാഞ്ഞിട്ട് വൈകിട്ടും ഉണ്ട് രണ്ടു മണിക്കൂറെടുത്തു ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ ഇത് പോരാഞ്ഞിട്ട് ഇത് കണ്ട ഉടനെ ഞങ്ങൾക്കിനി ഭക്ഷണം കഴിക്കാൻ പറ്റുമോയെന്നറിയില്ല രണ്ടുമൂന്ന് ദിവസം കാരണം ഞങ്ങൾ കഴിക്കലില്ല മത്സ്യം അങ്ങനത്തൊരവസ്ഥയിലാണ് നിങ്ങളിങ്ങനത്തൊരു ഭക്ഷണം തന്നിരിക്കുന്നത് ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക നഷ്ടപരിഹാരം വേണമെന്നൊന്നുമല്ല ചേട്ടാ പക്ഷെ ഞങ്ങൾക്ക് ഇതിനി ഉണ്ടാവാൻ പാടില്ല വേറൊരാൾക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ചേട്ടൻ തന്നെ പറഞ്ഞുതരണം ഇപ്പം ഞങ്ങൾക്കുവേണ്ടി ഇങ്ങോട്ട് കൊണ്ടു തന്നു അപ്പോൾ അതുകൊണ്ടു ഞങ്ങൾക്ക് മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു അൻപത് ശതമാനം കുറച്ചു തന്നാൽ കുഴപ്പമില്ല പക്ഷെ എന്നാൽ ഇനി ഇങ്ങനെ വരരുതെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരണം അതെ നിങ്ങൾ എഴുതിയിട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് പൊതുവായി ഒരു അറിവ് നൽകണം നിങ്ങൾ തന്നെ നൽകണം എന്നിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പും തരണം അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കിതിങ്ങനെ തീർച്ചയായും തീർച്ചയായും തീർച്ചയായും വളരെ സന്തോഷം കാരണം സാധാരണ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റൊക്കെ പറയുമ്പോൾ ആൾക്കാർ വളരെ നമ്മൾ നമ്മൾ തെറ്റു ചെയ്ത പോലെയാണ് സംസാരിക്കുക പക്ഷെ ചേട്ടൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അത് ഒരുപാട് സന്തോഷമുണ്ട് അതെ അപ്പോൾ എനിക്ക് അതെ ഇനി ഇങ്ങനെ ഉണ്ടാവരുത് ഞാനാ ഭക്ഷണം വേണെങ്കിൽ തിരിച്ച് തരാം വേണ്ട അല്ലേ അപ്പം ഞാനത് കളയാം അത് കളയേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ട് ഭക്ഷണമാണല്ലോ പക്ഷെ ഇനി ഇങ്ങനെ വരരുത് ശരി ശരി ആ ആ എപ്പം വിളിച്ചാലും എടുക്കുന്നതായിരിക്കും ശരി ചേട്ടാ ശരി